അതെ ഇതാരാണ് സംസാരിക്കുന്നത് ആ പറയൂ മേഡം

ആ അതെ മേഡം ഞാൻ ആറ്റുകാലിലൊരു വീട് പുതിയതായിട്ട് ഇവിടെ വെച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തായിരുന്നു ആ മേഡത്തിന് എന്തൊക്കെയാണ് ആവശ്യം പറഞ്ഞോളൂ ഓക്കെ മേഡം അത് ചെയ്യാം പിന്നെ മേഡത്തിന് വേറെന്തൊക്കെയാണ് ആവശ്യം ആ മേഡം ഞങ്ങൾ വീടിൻ്റെ ഹാ ഹാളിനൊക്കെ ഒരു ഫോക്കൽ പോയിൻറ്റ് ഉണ്ടാക്കി ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ അത് മാത്രവുമല്ല ഞങ്ങൾ ത്രീഡി പെയിൻറ്റിംഗ് ചെയ്യാറുണ്ട് മാഡം ത്രീഡി പെയിൻറ്റിംഗ് അത് വേണോ ആ പിന്നെ മേഡം ഞങ്ങൾ പെയിൻറ്റിംഗ് യൂസ് ചെയ്ത് ചുവരിലൊരു ഗ്യാലറി വാളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് അത് വേണോ അത് ആൾക്കാർക്ക് നല്ല അട്ട്രാക്ടഡാണ് പിന്നെ കിച്ചണിലാണെങ്കിൽ ഞങ്ങൾ യൂഡിലിറ്റി സ്പെയ്സ് കഴിയുന്നിടത്തെല്ലാം അത് ചെയ്യാറുണ്ട് കാരണം ഈ ഞങ്ങൾ ഈ കിച്ചൺ അട്ട്രാക്റ്റാവാൻ വേണ്ടീട്ട് കണക്ഷൻ വയറുകളും മറ്റും അനാവശ്യമായിട്ട് കാണുന്നതൊക്കെ ഒഴിവാക്കാറുണ്ട് ആ ആ ആ ചെയ്യാം മേഡം പിന്നെ ഹോളിലൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള മറ്റേ കലാസൃഷ്ടികൾ പരമായിട്ട് ഞങ്ങൾ പടമൊക്കെ വരയ്ക്കാറുണ്ട് മാഡത്തിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാഡം അത് പറയാം ആ മേഡം ഞങ്ങൾ സസ്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്യാറുണ്ട് അപ്പം ഇടയ്ക്കൊരു വീട്ടിലിങ്ങനെ ചെയ്തു ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞായിരുന്നു കൊള്ളാമെന്ന് അവർക്കും ഒരുപാട് വർക്സൊക്കെ ഇതേക്കണക്ക് പിടിച്ച് കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു ആ മേഡം ഇപ്പോൾ ഒരുപാട് നല്ല മോഡേണായിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട് സാധാരണ പണ്ടൊക്കെ ഈ വൈറ്റ് അങ്ങനെ ഉള്ളതാണല്ലൊ കുടുതലും യൂസ് ചെയ്യാറ് പക്ഷെ ഇപ്പം ഒരുപാട് ഞങ്ങടേല് വെറൈറ്റി കളേഴ്സുണ്ട് അതെല്ലാം മാഡത്തിനു വാട്സപ്പ് ചെയ്തിരിക്കാം പിന്നെ കിച്ചൺ കബോഡൊക്കെ മാഡത്തിന് എങ്ങനെയാണ് സ്റ്റോർ റൂം ആ മേഡം പിന്നെ സ്റ്റോർ റൂമ് ഡൈനിങ് ഹാള് എല്ലാം ഞങ്ങൾ ചെയ്യും ആ മേഡം പിന്നെ ഞ ഒരുപാട് വർക്ക്സുണ്ട് അത് ഞാൻ മാഡത്തിന് വാട്സപ്പില് അയച്ചേക്കാം മാഡം നോക്കീട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി വിളിച്ചതിന് ഒരുപാട് നന്ദി മാഡം ഓ ശരി മാഡം